ഞാൻ ഇലട്രോണിക്സ് കാറ്റഗറിയിൽ നിന്ന് ഒരു ഹെഡ് ഫോൺസ് മേടിച്ചിരുന്നു അത് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴൊന്നും കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല ബട്ട് അത് ഞാൻ പ്ലേ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങീപ്പോൾ അതിൻ്റെ വൺ സൈഡ് വർക്കിങ്ങല്ല അതുപോലെ തന്നെ സൗണ്ടും വളരെ കുറവായിരുന്നു ചെവിയിൽ വെക്കുമ്പം തന്നെ വളരെ ചെവിയിൽ വെക്കുമ്പം തന്നെ ഭയങ്കര പെയിൻ ഫുൾ പോലെ ഒരു ഫീല് വരാ അതുപോലെ തന്നെ ഭയങ്കര ബൾക്കിയാണ് എനിക്കെവടേം കൊണ്ട് എന്നു എന്താ പറയാ എനു ട്രാവൽ ഫ്രണ്ട്ലി ഒന്നും അല്ല കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതിനുപോലും പറ്റാത്ത ഒരു ഹെവി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അതുപോലെ തന്നെ വോയിസ് ക്യാൻസലേഷനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രോഡക്റ്റിൻ്റെ ആഡ് കിടന്നിരുന്നത് ബട്ട് വോയിസ് ക്യാൻസലേഷനൊന്നും അതിനില്ലായിരുന്നു എനിക്ക് എൻ്റെ ഈ സൗണ്ടിൽ ഇതിൻ്റകത്തുള്ള സൗണ്ടിനെക്കാളും പുറത്തെ സറൗണ്ടിങ്സിലെ സൗണ്ടായിരുന്നു കൂടുതലും കേട്ടിരുന്നത്